നിയമപരമായ രേഖ ഉണ്ടാക്കാൻ ഒരുപാട് നടക്കണം അതിനുപുറകെ എനിക്ക് ഞാനിപ്പോൾ നിയമപരമായ രേഖയെന്ന് പറയുമ്പോ എന്റെ മോളുടെ ജനന സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അത് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ പേര് കൊടുത്തിട്ടുണ്ടെങ്കില് അവര തന്നെ പഞ്ചായത്തിൽ നിന്ന് റെഡിയാക്കി വച്ചോളും ഞാൻ പോയി ഞങ്ങളൊന്ന് അക്ഷയ വഴി അല്ലെങ്കിൽ ഒരു സിസ്റ്റം വഴി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി എനിക്ക് ഇവളുടെ പേര് കണ്ടെത്താത്തതുകൊണ്ട് അന്ന് പേരു കൊടുക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ തന്നെ പോയിട്ടാണ് റെഡിയാക്കിയത് പഞ്ചായത്തിൽ പോയിട്ട് റെഡിയാക്കിയത് ഞാൻ തന്നെയാണ് അതിന് നമ്മൾ ഒരുപാട് ഞാൻ ഒരുപാട് നടക്കേണ്ടി വന്നു ആധാറിൻ്റെ ഒരു പ്രശ്നം കാരണം എൻ്റെ ആധാർ ഒന്നുകൂടി പുതുക്കണമായിരുന്നു അപ്പോൾ ഈ ഒരു ജനന സർട്ടിഫിക്കറ്റ് മോളുടെ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആധാറിൻ്റെ പുറകെ ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നിട്ടാണത് കിട്ടിയത് അതിന് ശേഷം മോളുടെ റെഡിയാക്കാൻ വേണ്ടി പഞ്ചായത്തിൽ പോകും പിന്നെ താഴെ അതെ ഒരുപാട് സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കാൻ ഉണ്ട് അത് പൂരിപ്പിച്ച് അവിടെ കൊണ്ടുക്കൊടുത്ത് ഏഹ് ചല്ലാൻ അടച്ച് വീണ്ടും അത് വേറെ ഒരാളിനെക്കൊണ്ട് ഒപ്പിടീച്ച് അതവിടെ കൊടുക്കേണ്ട ഒരു പ്രോഗ്രസ് തന്നെയുണ്ട് ഒരു ഒരു ഏഹ് ഒരു ഏഹ് എങ്കിൽപ്പോലും ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് പുതുക്കാൻ പുതുക്കി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട് ആധാർ എടുക്കാൻ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അക്ഷയ വഴിയാണെങ്കിലും ഒരുപാട് തിരക്കാണ് പിന്നെ ഏറ്റവും പ്രയാസമുള്ളതെന്ന് വച്ചാൽ ഈ ആധാർ കാർഡ് എടുക്കാൻ തന്നെയാണ് ഏറ്റവും പ്രയാസം